ഉച്ചയൂണിന് ചോറ് എന്തെങ്കിലും ചാറ് കറിയുണ്ടാവും മീനോ സാമ്പാറോ എന്തെങ്കിലും കറി വയ്ക്കും പിന്നെ ഒന്നെങ്കിൽ വഴുതനങ്ങത്തോരൻ അല്ലെങ്കിൽ ചെറുപയർ മമ്പയർ എന്തെങ്കിലും തോരൻ വയ്ക്കും പിന്നെ കുറച്ച് സാലഡ് വേണം ഉച്ചയ്ക്ക് പിന്നെ അച്ചാർ അത്രയേയുള്ളു ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് രാത്രിയാണെങ്കിൽ ചേട്ടായിക്ക് ചപ്പാത്തിയാണിഷ്ടം കൊച്ചിന് ചോറ് കൊടുക്കും ചപ്പാത്തിയാണ് ഇഷ്ടമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞാൻ ചോറാണ് കഴിക്കുക ചോറിന് എനിക്ക് ഉച്ചക്കത്തെ കറിയുണ്ടെങ്കിൽ അതുതന്നെ അല്ലെങ്കിൽ എസ്ട്രാ എന്തെങ്കിലും കറി വയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കറി വയ്ക്കും ചേട്ടായിക്ക് ഹസ്ബൻ്റിന് ചപ്പാത്തീൻ്റെ കൂടെ ഒന്നെങ്കിൽ വെജിറ്റബിൾ കുറുമ അങ്ങനെയെന്തെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറി അത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ചിക്കൻ കറി ഉണ്ടെങ്കിൽ സന്തോഷമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ ഉച്ചയൂണിനും അത്താഴത്തിനൊക്കെയായിട്ട് സാധാരണ ഇവിടെ വയ്ക്കാറ്